നമ്മളൊരു വിഭവം തയ്യാറാക്കുകയാണെങ്കിൽ അതിനു രുചിക്കൂട്ട് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ രുചി വർദ്ധിപ്പിക്കുവാൻ ഇന്ന് പല പല പൊടി വിദ്യകളും ഇന്ന് ഉണ്ട് ഉദാഹരണമായിട്ട് പാലക്കാട് ജില്ലയില് ആണെങ്കിൽ പാലക്കാടൊരു മീൻകറി വെക്കുകയാണെങ്കിൽ ആ മീൻകറിക്കാവശ്യമായിട്ടുള്ള പുളി നമ്മള് നമ്മുടെ സാധാരണ പുളിയാണ് ഉപയോഗിക്കാറ് ഇത് കൂടുതൽക്കാലം ഈട് നിൽക്കുന്നതിനും അതുപോലെ രുചി കൂട്ടുന്നതിനുമുള്ള ഒരു പൊടിക്കയ്യെന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അതുപോലെത്തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയായതു കൊണ്ട് ഇത് ആ പാചകത്തിൻ്റെ രുചി വർധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെതന്നെ നല്ല പച്ചക്കറികൾ തി രഞ്ഞെടുക്കുന്നത് ഈ പാചകത്തിൻ്റെ രുചിക്കൂട്ട് വർധിപ്പിക്കുന്നതിന് വലിയൊരു പ്രധാന ഘടകമാണ് അതുപോലെത്തന്നെ ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ പാചകത്തിൻ്റെ രുചിക്കൂട്ടുകൾ വർധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു